ഞങ്ങളുടെ പ്രദേശത്തെ ആളുകൾ സന്ദർശിക്കുന്ന മതപരമായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാല് മുസ്ലിംസ് ആണെങ്കില് പള്ളിയിൽ പോകും അത് ആണുങ്ങള് മാത്രമെ പള്ളിയില് പോകാൻ പാടുള്ളു സ്ത്രീകൾ ആരും തന്നെ പള്ളിയിൽ പോകാൻ പാടില്ല എല്ലാവരും വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് ഒക്കെ ഖുറാൻ പാരായണം ചെയ്യുക എല്ലാം ചെയ്യേണ്ടത് വീട്ടിൽ നിന്നാണ് എന്നാൽ നേരെ മറിച്ച് പിന്നെ ഞങ്ങൾക്ക് നാല് നേരം നിസ്കാരങ്ങൾ ആണ് ഉള്ളത് ഈ നിസ്കാരത്തിന് ഒക്കെ ആണുങ്ങള് പള്ളിയില് പോകണം സ്ത്രീകൾ ആണെങ്കിൽ വീട്ടിൽ തന്നെ നിന്ന് നിസ്കരിക്കയാണ് വേണ്ടത് നേരെ മറിച്ച് ക്രിസ്ത്യൻസിനാണെങ്കിൽ ആർക്കുംപള്ളി എല്ലവർക്കും പള്ളിയിൽ പോകാം സ്ത്രീകൾ കുട്ടികൾ മുതിർന്നവർ ആണുങ്ങള് എല്ലാവർക്കും അങ്ങനെ പള്ളി പള്ളിയിൽ പോകാൻ പറ്റും ഒരുമിച്ചുള്ളൊരു ആരാധനാലയം ആണ് ക്രിസ്ത്യൻസിനുള്ളത് എന്നാൽ ഹിന്ദുക്കൾക്ക് ആണെങ്കിലും ഇതേപോലെ തന്നെ ആണ് എല്ലാവർക്കും അമ്പലത്തിൽ പോകാം തൊഴാം പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ എല്ലാരും എല്ലാ മതത്തിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് ഇവരുടെ ക്രിസ്ത്യൻ പള്ളിക്ക് ആണെങ്കിൽ മുസ്ലിംങ്ങളോ ഹിന്ദുക്കളോ പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ മുസ്ലിംസിൻ്റെ പള്ളിയില് ഹിന്ദുക്കളോ ക്രിസ്ത്യനികളൊന്നും പോകാൻ പാടില്ല ഹിന്ദുക്കൾക്കും അങ്ങനെ തന്നെ ആണ്